ആ അതേ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ നമുക്കിവിടെ പല ടൈപ്പുള്ള അലമാരികളുണ്ട് തടിയുടെയുണ്ട് തേക്കിൻറ്റെയുണ്ട് താങ്കൾക്ക് ഏതിൻ്റെ കൂട്ടാണ് വേണ്ടത്

പ്രൈസ് കുറവ് വെരണത് ആ തേക്കിനൊക്കെ വരുമ്പോൾ അത്യാവശ്യം വില കൂടും അല്ലാത്ത വില കുറഞ്ഞതുണ്ട് തേക്കാണെ ഞങ്ങൾ ഡിസ്കൗണ്ടൊക്കെ ഒപ്പിച്ച് നമ്മൾക്ക് എങ്ങനേലും അഡ്ജസ്റ്റ് ചെയ്യാം സെക്ഷൻ പിന്നെ പല സെക്ഷനിലുണ്ട് നമ്മൾക്ക് പ്ലാവിൻ്റെയുണ്ട് അങ്ങനത്തെ കുറേ സെക്ഷനായിട്ടാ ഇവിടെ വരുന്നത് മഹാഗണി അങ്ങനത്തെ കുറേയുണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ മോഡലാ വേണ്ടതെന്ന് പ്രൈസ് കുറച്ചാണോ എങ്ങനത്തെ മോഡലാ വേണ്ടതെന്ന് പറയാമോ

ആ പ്രൈസ് ഇപ്പം നമ്മൾ ഇവിടെ ഡിസ്കൗണ്ട് അനുസരിച്ചും കൊടുക്കുന്നുണ്ട് താങ്കൾ ഇവടെ വന്നെടുക്കുകയാണോ അല്ലെങ്കിൽ ഞങ്ങളങ്ങ് ഡെലിവറ് ചെയ്യുവാണോ എങ്ങനെയാണ് പറഞ്ഞു തരുവാണെങ്കിൽ ഞങ്ങൾക്കത്രയിതായിരുന്നു ഡെലിവെറി ചാർജ്ജ് ഒരു ആയിരമൊക്കെ അടുത്താകും നമ്മളുടെ വണ്ടി കൂട്ടി നമ്മടടുത്തെ ലോങ്ങാണെങ്കിൽ അതിനനുസരിച്ച് കൂടും നമ്മുടെയടുത്താണെങ്കിൽ അതിനനുസരിച്ച് കുറയുകയും ചെയ്യും

എടുത്ത് ഇവടുന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി നമുക്കിവിടെ ഷോപ്പിൽ വണ്ടിയുണ്ട് നമ്മൾ അത് നിറച്ച് കയറ്റിക്കൊണ്ട് വരുവാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഏതാണെന്ന് വെച്ചാൽ അതും കൂടെ പറയുവാണെങ്കിൽ നമുക്കതിനനുസരിച്ച് ഡിസ്കൗണ്ട് നോക്കാം ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾക്ക് അയച്ച് വിടാം ആ തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കാം അത് നമ്മൾ ദൂരം അനുസരിച്ചാണ് കൊടുക്കുന്നത് താങ്കളുടെ വീട് എവിടെയാണെന്ന് പറയുവാണെങ്കിൽ നമ്മക്കതുവെച്ച് നോക്കാം ആ ആപ്പം അത് അധികം ദൂരമില്ല അപ്പം നമുക്കൊന്നിച്ച് ഡിസ്കൗണ്ട് കയറ്റി നമുക്ക് വിടാം താങ്കൾ ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാണെ നമുക്ക് വില നോക്കീട്ട് എടുക്കാം ആ ആ ഓക്കേ ഓക്കേ താങ്ക് യൂ താങ്ക് യൂ